വയനാട് ജില്ലയിൽ പ്രധാന കാർഷിക വിളയായ നെല്ല് കാപ്പി ഏലം എന്നിവ ധാരാളമായി കാണാൻ കഴിയുന്നു അതുപോലെ ചായ കോഫി കൂൾ ഡ്രിങ്ക് വർക്കുകൾ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ഫോർ ഫോർ വീൽ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ മേഖലകളും ധാരാളമായി കാണാൻ കഴിയുന്നു പ്രധാനമായും തേയിലക്കൃഷി കൂടുതൽ കർഷകരിലേക്ക് എത്തിക്കുന്നു തൊഴിൽ ലഭിക്കുന്നു കാപ്പി ആണെങ്കിൽപ്പോലും കൃഷിയുടെ ഉൽപാദനത്തിലും കാപ്പി നെല്ല് തുടങ്ങിയവ മുൻപന്തിയിൽ നിൽക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്